ഹലോ ആ ഏട്ടാ നാളെ എയർപോർട്ടിലേക്ക് പോകാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എത്ര സമയത്ത് വീടിൻ്റെ അവിടെ എത്തും എന്നറിയാൻ വേണ്ടിയിട്ടാണ് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ കൃത്യ സമയത്ത് തന്നെ വരുമല്ലോ അല്ലെ നിങ്ങളുടെ പേരെന്തായിരുന്നു ഓക്കേ അപ്പോൾ ഓക്കേ ചേട്ടാ ഓക്കേ അപ്പോൾ പത്തു മണിക്ക് മുൻപായിട്ട് വരും ഓക്കേ ചേട്ടാ അപ്പോൾ കൃത്യസമയത്തു തന്നെ വരണം അപ്പോൾ നമുക്ക് ഒരു മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും അവിടെ എയർപോർട്ടിൽ കയറണം അപ്പോൾ വൈകാതെ എത്തുമല്ലോ അല്ലേ കുറച്ച് നേരത്തെ ഒരു ഒൻപതരയ്ക്ക് എത്തിയാലും കുഴപ്പമില്ല നിങ്ങളുടെ എവിടെയാണ് നിങ്ങളുടെ വീട് എവിടെയാണ് അവിടെ നിന്ന് ഇവിടെ എത്താൻ എത്ര സമയം എടുക്കും അതിൽ അപ്പോൾ ട്രാഫിക്ക് എല്ലാം നോക്കിയിട്ട് കുറച്ച് അഥവാ രാവിലെ എന്നുവച്ചാൽ ട്രാഫിക്ക് ഉണ്ടെങ്കിൽ ലേറ്റായി കഴിഞ്ഞാൽ എയർപോർട്ടിൽ കയറാൻ വൈകുമല്ലോ അപ്പോൾ കുറച്ച് നേരത്തെ വരാൻ ശ്രമിക്കണം ലേറ്റ് ആകാതെ ഒരു ഒൻപതര ആകുമ്പോഴേക്കും എത്താൻ ശ്രമിക്കണം ഓക്കേ ആ ചേട്ടാ അപ്പോൾ കൃത്യസമയത് എത്തുമല്ലോ അല്ലെ വൈകരുത് വൈകി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും അഥവാ നിങ്ങൾ വൈകി ലേറ്റായാൽ വല്ലാതെ ലേറ്റ് ആകുകയാണേൽ വേറെ കാർ പിടിച്ച് പോകും വല്ലാതെ ഒൻപതരയ്ക്ക് ഒൻപതര ഒൻപതേ മുക്കാൽ ആകുമ്പോഴേക്കും എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വരണ്ട